ഒരു വർഷത്തിൽ പലതരത്തിലുള്ള കാലാവസ്ഥകളുണ്ടാവും പ്രത്യേകിച്ചു ഇന്ത്യ കേരള ഭാഗങ്ങളിൽ മൺസൂൺ കാലാവസ്ഥ അത് കൊണ്ട് കൂടുതലും അതിന് അനുസൃദമായിട്ടുള്ള എന്തുണ്ട് ഓരോ വിളകളുണ്ട് വിളകളുടെ മാറ്റങ്ങളങ്ങളുണ്ട് അപ്പ കേരളത്തിലെ മെയിൻ വിളയാണ് അരി റൈസ് അപ്പോ ഈ അരിക്ക് പ്രധാനമായി വേണ്ടത് മൂന്ന് സീസണുകളാണ് വിരിപ്പ് മുണ്ടകൻ പിന്നെ പുഞ്ച ഈ മൂന്ന് കാലഘട്ടത്തിൽ ഈ മൂന്ന് സീസണുകളിലായിട്ടാണ് കൂടുതലായും റൈസ് വിഭവങ്ങൾ വിളവെടുക്കുന്നത് ആദ്യം വിരിപ്പ് വിരിപ്പ് എന്നുള്ളത് ഏപ്രിൽ മെയ് മുതൽ സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിലും പിന്നെ മുണ്ടകൻ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഡിസംബർ ജനുവരി കാലം പിന്നെ പുഞ്ച ഡിസംബർ മുതൽ ഡിസംബർ ജനുവരി കാലം മുതൽ മാർച്ച് ഏപ്രിൽ വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ ഈ കാലത്തിലായിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത കേരളത്തിന് പലയിടങ്ങളായിട്ട് കൃഷികൾ നടക്കും പല അരികൾക്കും മട്ടനരിക്കും ഒരു രീതിയാണെങ്കിൽ വള മറ്റു അരികൾ പച്ചരിക്കും വേറൊരു രീതി ആയിരിക്കും അങ്ങനെ ഓരോ അരിക്കും അതിനോട് യോജിച്ച സീസണുണ്ട് അതിന് അനുസരിച്ച കൃഷി രീതികളുമുണ്ട് പിന്നെ അതിനു പുറമേ കേരളത്തിൻ്റെ പലയിടങ്ങളിലും കോമണായി അല്ലെങ്കിൽ പൊതുവായി കാണപ്പെടുന്ന ചില സസ്യങ്ങളുണ്ട് കാലങ്ങൾ കാലാധീതമായി സീസണുകളില്ലാതെ വരുന്ന ഉദാഹരണത്തിന് തെങ്ങ് കേരളം കേര അഥവാ തെങ്ങ് എന്നു പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പ്രധാന വിഭവമാണ് അതിൽ നിന്നാണല്ലോ കേരളത്തിന് കേരള എന്നുള്ള പേരൊക്കെ വന്നത് അപ്പോൾ കേരനാടിൻ്റെ കേര അത് പ്രത്യേക സീസണുകൾക്ക് അപ്പുറം പലയിടങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് തെങ്ങുകൾക്ക് വെള്ളമുണ്ടായാൽ മതി അതിനനുസരിച്ചുള്ള ഒരു പ്ലേസ്മെൻറ് ഒരു സ്ഥലവും ഉണ്ടായാൽ അതിന് തഴച്ചു വളരാം അതുപോലെ മറ്റു ഹൈ ലെവലിലുള്ള ഉയർന്ന ഹൈ റേഞ്ച് ഏരിയകൾ ഉയർന്ന സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് ഇടുക്കി വയനാട് തുടങ്ങിയ നല്ല തണുപ്പ് ക്ലൈമറ്റുള്ള സ്ഥലങ്ങളിൽ ടീ പ്ലാൻസ് തേയില കാപ്പി ചോക്ലേറ്റ് തുടങ്ങിയ കൃഷികളും കാലാനുസൃതം കാലത്തിനതീതമായി ഉണ്ടാക്കപ്പെടുന്നുള്ള ഒരു തേയിലത്തോട്ടമൊക്കെ നമ്മൾ എപ്പം ചെന്നാലും അവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷെ കൂടുതലും തണുപ്പ് കാലമായിട്ടുള്ള ഡിസംബർ ജനുവരി ആസ്പാസിലുള്ള കാലത്തിലായിരിക്കും കൂടുതൽ അതിൻ്റെ തഴച്ചു വളർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു യാഥാർഥ്യം പിന്നെ പലയിടങ്ങളിലായിട്ട് റബ്ബർ പോലത്തെ മറ്റു കൃഷികളും ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മുടെ അതുപോലെ മരച്ചീനി മധുരക്കിഴങ് തുടങ്ങിയവയും ഉണ്ടാവും അതുപോലെ ചീര വഴുതന പടവലങ്ങ തുടങ്ങിയതെല്ലാം ഈ മൺസൂൺ കാലത്ത് ഉണ്ടാവുന്നതാണ് മൺസൂൺ സീസൺ ആവുമ്പോൾ ഉണ്ടാകുന്നതാണ്